എനിക്കൊരു പാൻ കാഡ് എനിക്ക് ഡീമാറ്റില് ഒരക്കൗണ്ട് തുറക്കാൻ ഒരു പാൻ കാഡ് വേണം അപ്പോള് ആ പുതിയ പാൻ കാഡിന് അപേക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കെന്നെ സഹായിക്കാൻ സാധിക്കുമോ എന്തൊക്കെ രേഖകളാണ് ഇതിന് ആവിശ്യമായിട്ടുള്ളത് എൻ്റെ കയ്യില് എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട് എൻ്റെ അഡ്രസ്സ് പ്രൂഫുകളുണ്ട് ആധാർ കാർഡുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോള് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുള്ള എന്ത് എന്തൊക്ക ആവിശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കീ പിൻ പാൻ കാഡിന് വേണ്ടത് അപ്പോള് അതിൻറ്റെ ആ അഡ്രസ്സ് ഡെയിറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ ബാക്കി കമ്മ്യൂണിറ്റി മെറിറ്റൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എൻ്റെ എല്ലാവിധ രേഖകളും എന്റെ കയ്യിലുണ്ട് അത് അതനുസരിച്ച് എനിക്കൊരു പുതിയ പാൻ കാഡ് അപേക്ഷിക്കാനുള്ള സഹായം ചെയ്തു തരിക